മലയാള ഭാഷ സംസാരിക്കുന്ന ഒരാൾ ആയതിലും ഒരു മലയാളിയായി ജനിച്ചതിലും ഏറെ ഒരുപാട് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം നമ്മുടെ മലയാളം ഭാഷയോളം വ്യക്തിത്വമുള്ള കേൾക്കാൻ ഇമ്പമുള്ള കേൾക്കുമ്പോൾ കാതുകൾക്ക് ഇമ്പമുള്ള ഒരു ഭാഷ വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ നമ്മൾ ഇപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ എത്ര മനോഹരമാണ് ഞാൻ നമ്മൾ രാവിലെ ഉണരുന്നു പുലരി പുലരി പിറക്കുന്നു അതായത് പുലരി വളരെ മനോഹരമായി കിളികൾ പാടി ഉണർത്തി പുലരി പിറക്കുന്നു നമ്മൾ നമ്മൾ കുളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അമ്മ എന്ന് വിളിക്കുന്നു അച്ഛാ എന്ന് വിളിക്കുന്നു നമ്മൾ മക്കളേന്ന് വിളിക്കുന്നു അതൊക്കെ എത്ര മനോഹരമായ മക്കൾ വാക്കുകളാണ് മക്കളെ അമ്മ അച്ഛ നമ്മുടെ ഭാര്യ ജീവിത സഖി നമ്മുടെ അപ്പൻ അപ്പൻ എന്നൊക്കെ പറയുന്നത് എത്ര മനോഹരമായ മലയാളത്തിലെ വാക്കുകളാണ് അങ്ങനെ ഒരു വാക്കുകൾ വേറൊരു ഭാഷേയിലും കിട്ടുമോ അമ്മ പിന്നെ നമ്മൾ യാ നമ്മൾ ഒരു വീട് വിട്ട് ഇറങ്ങുമ്പോൾ പറയില്ലേ നമ്മൾ യാത്ര പോവാൻ പോയിട്ട് വരാം അങ്ങനെ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാൻ മേലാത്ത നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഒരുപാട് വാക്കുകൾ എല്ലാം മലയാള ഭാഷയിൽ അത് വളരെ മനോഹരമാണ്